കുട്ടികാലത്ത് ഓടികളിച്ചുമൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പോവുമ്പോൾ ഓട്ട മത്സരത്തിലും ഇതിലൊക്കെ പങ്കെടുത്തിരുന്നു ഇങ്ങനെ ഓടി കൂട്ടുകാരുടെ ഒപ്പമൊക്കെ ഓടി അങ്ങനെ വരുമ്പോൾ നമ്മളെ മുന്നിലെ എത്തിയ കൂട്ടുകാർക്കൊക്കെ ഒരു ദേഷ്യം വെറുപ്പുമൊക്കെ ആയിരുന്നു എങ്ങനെ വന്നാലും പിന്നെ ഓടി നമ്മൾ മുന്നിലെത്തുമ്പോൾ മത്സരത്തിലൊക്കെ നമുക്ക് ഫഷ്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം നമ്മളെ കൂടെ പോരുന്നോർക്കൊക്കെ നല്ല സന്തോഷം ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ കൂടെ പോരുന്നോർക്ക് വന്നാൽ നമ്മൾ എന്തെങ്കിലിമൊക്കെ ഒരു ഇത് ചെയ്യുമ്പോഴൊക്കെ ഓല്ക്കും നല്ല സന്തോഷം ഉള്ളൊരു നമ്മളുടെ ഒപ്പം പോരുന്ന ഒരാളാണ് എന്നുള്ള ഒരു നിലയ്ക്ക് നല്ല സന്തോഷത്തോടെ ആണ് അവർ നമ്മളോടും പെരുമാറുന്നതൊക്കെ പിന്നെ കുറച്ചൊക്കെ ഒരോരുത്തർക്കും ഈറയും ഒക്കെ ഉണ്ടാവും കാരണെന്താച്ചാ ഓലെ മുന്നിൽ നമ്മൾ എത്തുമ്പോൾ ഒരു ചെറിയ ഒരു ഈറിങ്ങ് പോലെയൊക്കെ ഉണ്ടാവും എന്നാലും നമ്മളോട് പ്രേത്യേകിച്ച് അങ്ങനെ ഒരു ദേഷ്യമൊന്നും കാട്ടാൻ ഒന്നും ആരും നിന്നിട്ടില്ലായിരുന്നു എല്ലാവർക്കും സന്തോഷം തന്നെ ആയിരുന്നു പിന്നെ ഓടി എല്ലാ മത്സരത്തിലും ഫഷ്ട് കിട്ടുമ്പോൾ എല്ലാവർക്കും നല്ല ഒരു എന്താണ് സന്തോഷമുണ്ടാവും കാരണം എന്താ നമ്മൾ ഒപ്പം പോരണ ഒരാൾക്ക് എങ്കിലും ഫഷ്ട് കിട്ടിയല്ലോ എന്നുള്ള ഒരു നിലക്ക് സന്തോഷമായിക്കാണും അങ്ങനെ ഒരുപാട് ഓട്ട മത്സരം ഒക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് അങ്ങനെ ഓട്ടമത്സരിച്ച് രീതിയിലൊക്കെ ഫസ്റ്റും കിട്ടിയിട്ടുണ്ട് സെക്കൻഡും കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ഇതിന് കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് പ്രത്യേകിച്ചും അന്നേരമാണ് ഓട്ട മത്സരം ഇതൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയതാണ് ഒരുപാട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് സെക്കൻഡും കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ്